മലയാള ഭാഷ പാടാണ് പഠിക്കാന് തമിഴ് പഠിക്കാനെളുപ്പമാണ് മലയാള ഭാഷ ഇത്തിരി പാടാണ് താരതമ്യപ്പെടുത്താനായിട്ട് പറ്റത്തില്ല ഭാഷകളില് ഏറ്റവും എളുപ്പം തമിഴ് ഭാഷയാണെളുപ്പം എന്നാല് മലയാള ഭാഷയെ ആണ് എനിക്കറിയാവുന്നത് അത് നന്നായിട്ട് പറയുവാനായിട്ട് ഞാനാഗ്രഹിക്കുന്നു തമിഴ് ഭാഷ അത്രയും അറിയില്ല തമിഴ് ഭാഷയെക്കാളും പഠിക്കാന് ബുദ്ധിമുട്ട് മലയാള ഭാഷയാണ് മലയാളം വ്യക്തമായി എഴുതാനും